സൈക്കിളുകളെപ്പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ഇവിടെയൊക്കെ വിവിധ തരത്തിലുള്ള സൈക്കിളുകൾ ഉണ്ട് മെയിൻ ആയിട്ട് നമുക്ക് സാധാരണ സൈക്കിൾ വരുന്നുണ്ട് അതിൽ തന്നെ വ്യത്യസ്ത സൈസ് ഉണ്ട് അതായത് കുട്ടികൾക്കായിട്ടുള്ള സൈക്കിൾ പിന്നെ മുക്കാൽ സൈക്കിളെന്നൊക്കെ പറയും പിന്നെ ഒരു സൈക്കിൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ സൈക്കിളുകളെപ്പറ്റി പറയാം അങ്ങനെ ഓരോ സൈക്കിളിനും വേറെ വേറെ ഡിഫറെൻ്റ്സ് ആയിട്ട് ഉള്ള സാധനങ്ങളുണ്ട് ഇപ്പം നോർമൽ സൈക്കിളുണ്ട് അതുപോലെ തന്നെ ഷോക്ക് വരുന്ന സൈക്കിളുകളുണ്ട് പിന്നെ ഗിയർ വരുന്ന സൈക്കിളുകളുണ്ട് ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഗിയറും ഷോക്കും ഉള്ള സൈക്കിളുകൾ ഭയങ്കര ഇഷ്ടമായിരുന്നു പണ്ടുതൊട്ടേ പക്ഷെ നമ്മൾക്ക് സാമ്പത്തികമായിട്ട് വലിയ ഇത് ഇല്ലാത്തതിനാൽ നമ്മൾ നോർമൽ സൈക്കിളായിരുന്നു യൂസ് ചെയ്തുകൊണ്ട് ഇരുന്നത് അപ്പം എൻ്റെ ഫാമിലിയ്ക്ക് പറ്റുന്നതുപോലെ എനിക്കൊരു സൈക്കിൾ മേടിച്ച് തന്നു എന്തും യാത്രയ്ക്കും എന്തിന് ആയാലും എനിക്ക് സൗകര്യം എൻ്റെ സൈക്കിൾ തന്നെ ആയിരുന്നു ഒരിക്കലും ഞാൻ എൻ്റെ സൈക്കിൾ മോശമാണെന്നോ അങ്ങനെയൊരു രീതിയിൽ നമ്മൾ കണ്ടിട്ടില്ല എൻ്റെ സൈക്കിൾ എപ്പോഴും എനിക്ക് ഇഷ്ടമായിരുന്നു പിന്നെ ഇപ്പോഴെന്നു പറയുമ്പോൾ സൈക്കിളുകൾക്കൊക്കെ ഭയങ്കര പ്രധാനം പ്രാധാന്യം നൽകുന്നൊരു സമൂഹമാണ് കാരണം പെട്രോളിനൊക്കെ വില കൂടുന്നതിനെ തുടർന്ന് പകുതി ആൾക്കാരും സൈക്കിളിലേക്ക് മാറുകയാണ് നല്ല സൈക്കിൾ എപ്പോൾ ഏതെങ്കിലും പൈസ ഭയങ്കര എമൗണ്ട് ഒക്കെ വരുന്ന സൈക്കിളുകളാണ് കൂടുതലും പുറത്തൊക്കെ കാണാനുള്ളത് ഒരു പത്തും ഇരുപതിനായിരത്തിയൊക്കെ കൊടുത്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സൈക്കിൾ കിട്ടാനുണ്ട് ഗിയറും ഷോക്കും ഉള്ള സൈക്കിളൊക്കെയാണ് ബെറ്റർ പിന്നെ ഡിസ്ക് ബ്രേക്ക് എല്ലാം ഇപ്പോഴത്തെ സാങ്കേതിക വിദ്യകൾക്ക് അനുസരിച്ച് മികച്ച സൈക്കിളുകൾ വന്നുകൊണ്ടെ ഇരിക്കുകയാണ് എന്തായാലും സൈക്കിളുകൾ നല്ലത് തന്നെയാണ്